എൻ്റെ അറിവിൽ സർക്കാരിൻ്റെ പദ്ധതികൾ നിലവിൽ നടപ്പിലക്കുന്ന പദ്ധതികളെ തൊഴിലുറപ്പ് പോലെയുള്ള പദ്ധതികളൊക്കെ പറഞ്ഞാൽ പകുതിയും ഒരാൾ പ്രദേശത്ത് നടത്തേണ്ട കാര്യങ്ങൾ നടത്തുന്ന പോലെ അല്ല നടത്തുന്നത് അതായത് തിരുവനന്തപുരത്തും കൊല്ലത്തും കോട്ടയത്തും ഒക്ക നടത്തുന്ന അതേ സംവിധാനം തന്നെ ഇടുക്കി ജില്ലയ്ക്കും വച്ചാൽ രണ്ട് സ്ഥലങ്ങളും രണ്ടല്ലേ ഈ ജില്ല ഓരോ ജില്ലയ്ക്കും അതിന് അതിൻ്റേതായ ഭൂപ്രകൃതിയുടെ വ്യത്യാസം കാലാവസ്ഥ വ്യത്യാസം അപ്പം അതുപോലെ തന്നെ തൊഴിലുറപ്പാണെങ്കിൽ പോലും കർഷകർ ഉപകാരപ്പെടുന്ന ഒരു ജോലി ആയിട്ട് അത് മാറ്റണം അതാത് പ്രദേശത്തെ അതാത് പഞ്ചായത്തുകൾക്ക് അതിനുള്ള അംഗീകാരം കൊടുക്കണം അത് അങ്ങനെ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ തൊഴിലുറപ്പ് പദ്ധതികൾ കൊണ്ടു പോവാണെങ്കിൽ പോലും പ്രയോജനപ്പെടത്തുള്ളൂ സർക്കാരിൻ്റെ പദ്ധതികളെല്ലാം നല്ല കാര്യങ്ങളൊക്കെയാണ് പറച്ചലിൽ പക്ഷെ നല്ല രീതിയിൽ പോകണമെങ്കിൽ ഇങ്ങനെ വേണം തൊഴിലുറപ്പ് പദ്ധതി ആണെങ്കിൽ ഇങ്ങനെയാണ് വേണ്ടിയത് പിന്നെ ഭവന നിർമ്മാണ പദ്ധതിയെ കുറിച്ചു പറയുകയാണെങ്കിൽ സർക്കാർ കൊടുക്കുന്ന ഇന്നത്തെ ഈ ഈ പൈസ കൊണ്ട് ഒരു ഭവനം പണിയണമെങ്കിൽ നിലവിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരു കല്ല് പൊട്ടിച്ചെടുക്കാനോ അല്ലെങ്കിൽ ഇച്ചിരി മണൽ വാരിയെടുക്കാനോ ഒന്നും സാധിക്കാത്ത അവസ്ഥയാണ് നമ്മളെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ഈ സർക്കാർ ഇതിങ്ങനെ നിർത്തുമ്പോൾ ഇത് മുഴുവൻ കുത്തക മുതലാളിമാരുടെ പാട്ടക്കാരൻ്റെയൊക്ക കൈയിൽ നിന്ന് കൈയിലേക്ക് പോവും കുത്തക മുതലാളിമാരുടെ കൈയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിപ്പറിന് കാശ് കൊടുക്കണം ഒരു ലോഡ് കല്ല് കൊണ്ടു വരണം ഇത്ര വേണം ഒരു ഭവന നിർമ്മാണ പദ്ധതിയെ കുറിച്ചു പറയുമ്പം ഭവന നിർമാണ പദ്ധതി നന്നായി കൊണ്ട് പോകണമെങ്കിൽ ഇപ്പം സ്വന്തം പറമ്പിൽ കല്ലുണ്ടെങ്കിൽ കല്ല് പൊട്ടിക്കാനുള്ള ഒരു അവസരവും അതുപോലെ തന്നെ ഇച്ചിര മണ്ണ് നീക്കി ചെയ്യാനുള്ള ഇത് കാര്യങ്ങൾ ഇതിനൊക്കെ ഈ നിലവിൽ സർക്കാർ കുറച്ചു കൂടെ ഈ അതാത് പ്രദേശത്തിനെ കുറിച്ചു കുറച്ചു കൂടെ കാഴ്ചപ്പാട്കൾ വേണം അതിനെ കുറിച്ചു കുറച്ചു കൂടെ പഠിക്കാനുണ്ട് നിലവിൽ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ഉണ്ട് ഭവന നിർമ്മാണ പദ്ധതിക്ക് നമ്മൾക്ക് ഇപ്പോൾ എന്നാൽ കൊടുക്കുന്ന പൈസ കൊടുക്കുന്ന പൈസ കൊണ്ട് ഈ ചില കട്ടയും ഇച്ചിര ഇറക്കി ഇല്ലെങ്കിൽ ഇച്ചിര എംസാൻ്റ് അത് ഇറക്കി കഴിയുമ്പഴത്തേക്ക് അതിൻ്റെ പരിപാടി തീരും നിലവിൽ നമ്മൾ അങ്ങനെ ഇത് ഇവിടെ നമുക്ക് ചെയ്യാനുള്ള ഒരു ഇത് കിട്ടുകയൊക്കെ ആണെങ്കിൽ ചില കല്ല് പൊട്ടിക്കാനോ അല്ലെങ്കിൽ ചില മണ്ണ് മണൽ വാരാനോ ഒക്കെയുള്ള സംവിധാനങ്ങൾ സർക്കാർ തരുകയാണെങ്കിൽ അനുവാദം കൊടുക്കുക ആണെങ്കിൽ ഈ പറയുന്ന പൈസയിൽ ഒര് കൊറേ കാശും കൂടെയൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ എങ്കിലും ഒരു കുഞ്ഞ് വീട് ഉണ്ടാക്കി വയ്ക്കണം എടുക്കാൻ പറ്റും നിലവിൽ അതാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ ഈ നാല് ലക്ഷം രൂപ സർക്കാർ ഇപ്പം കൊടുക്കുന്ന ഭവന നിർമ്മാണ പദ്ധതിക്ക് നാല് ലക്ഷം രൂപ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമ്മുടെ ഈ കേരളത്തിലുള്ള സർക്കാരിൻ്റെ ആ തലപ്പത്ത് ഭരിക്കുന്നവർക്കും ഇത് പ്രഖ്യാപിക്കുന്നവർക്കും എല്ലാം അറിയാം എത്ര രൂപയുടെ ചിലവുണ്ടെന്ന് ഇതൊക്കെ അറിയാമെങ്കിലും പാവപ്പെട്ടവന് ഒരു വീട് കൊടുക്കുകയാണെങ്കിൽ അതിന് നിലവിൽ അവൻ അത് പ്രയോജനപ്പെടുന്ന രീതി കൊടുക്കണം കൊടുത്തെങ്കിലേ അതുകൊണ്ട് കാര്യം ഉള്ളൂ അല്ലാതെ നിലവിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അതാണ് ഇല്ലാതെ നമ്മുടെ ഒരു ആ ഞങ്ങൾ ഒരു സർക്കാർ ഏതുമായിക്കോട്ടെ ഏത് സർക്കാരായാൽ എന്ത് ഈ പദ്ധതികൾ കൊടുക്കുമ്പോൾ അവർ അതത് ഉപഭോക്താവിന് പ്രയോജനപ്പെടുന്ന രീതിയിൽ ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അങ്ങനെ കൊടുത്തെങ്കിലേ അവർക്ക് ഉപകാരമുള്ളൂ അതല്ലെങ്കിൽ ഇത് പാതി വഴിയിൽ ഇട്ടിട്ട് പോവും വീണ്ടും കടമാവും അങ്ങനെയൊക്കെ ചെയ്തിട്ട് കാര്യമില്ല അതായത് അടിസ്ഥാനമായിട്ട് പറഞ്ഞാൽ നമ്മൾ സർക്കാരിൻ്റെ ഓരോ പ്രവർത്തികളും പിന്നെ കുറച്ചു കൂടെ ഈ അതാത് ഏത് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആളാണെങ്കിലും അതൊക്കെ കുറച്ചു കൂടെ പഠിച്ചിട്ട് പഠിക്കാനുണ്ട് അല്ലാതെ ഈ ഇപ്പം ഏത് റൂമിൽ ഇരുന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്ക പറഞ്ഞാൽ അത് കൊണ്ടൊന്നും കാര്യം പ്രാപ്തിയാകുകയില്ല നിലവിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതാണ് ഇങ്ങനെയൊക്കെ നോക്കി ചെയ്താലേ ഒരു ഭവന നിർമ്മാണം നടത്താൻ കൊടുക്കുന്ന പൈസ ഇത്രയേ ഉള്ളൂ അത്കൊണ്ട് ഒന്നു ഒരു പരിപാടിയും ഈ ഇതിൻ്റ നട ക്കുകയില്ല ഇനി ഒരു കാരണം ഞാൻ അത് മുമ്പെ സൂചിപ്പിച്ചത് പോലെ ഇതാണ് അതിൻ്റെ കാരണം നിലവിൽ നമ്മള് ഈ ഇപ്പം ആകുമ്പോൾ ഇത്രയും പൈസ കൊണ്ടൊന്നും ഒരു വീട് നടക്കില്ല അതുകൊണ്ട് സർക്കാർ അതൊക്ക കുറച്ചു കൂടി ഒക്കെയാണ് അതിനൊക്കെ ഒരു കുറച്ചു കൂടെ കാര്യങ്ങളെ കുറിച്ചു പഠിക്കാനുണ്ട് അത് കുറച്ചു കൂടെയൊക്കെ കാര്യങ്ങൾ ചെയ്തും കൊടുത്തെങ്കിലേ പാവപ്പെട്ടവന് കൊടുക്കുന്ന വീടിനെ കുറിച്ച് ഒരു ഗ്രാഹ്യം ഉണ്ടാവുകയുള്ളൂ ചെയ്തു നടക്കൂള്ളൂ അത് ഇല്ലാതെ ഇത് ഞങ്ങൾ ഈ ഇതിന് സർക്കാർ ഇത്ര വീട് കൊടുത്തു എന്ന് പറയാമ്പോൾ അതിൽ കാര്യമില്ല സർക്കാർ കൊടുക്കുന്ന പൈസ കൊണ്ട് ഗുണം കൂടെ ഉണ്ടാകണ്ടേ